ഹലോ ലാപ്ടോപ് ഷോറൂമല്ലേ ഞാൻ അവിടെനിന്ന് ഹെച്ച് പീ യുടെ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചായിരുന്നു ലേറ്റസ്റ്റ് എഡിഷൻ അത് ഡേറ്റ് ഓർമയില്ല ഒരു ജൂണിലൊക്കെയാണ് അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിച്ചോണ്ടിരിക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവുന്നുണ്ട് എൻറെ അറിവിൽ അങ്ങനെയല്ല ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ ഗെയിമ് കളിക്കാനൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയെല്ലാം സംഭവിച്ചോ എന്നും അറിയത്തില്ല എന്നന്താണ് പ്രശ്നം എല്ലാം ഓപ്പൺ ആവുന്നുണ്ട് അപ്പം പക്ഷെ ഉപയോഗിക്കുന്നതിലാണ് കുറച്ച് ലാഗ് വരുന്നത് അപ്പോൾ എന്നൊക്കെയാണ് ഷോറൂം ഉള്ളത് അപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് വരാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ശരി ശരി ആ ഞാൻ കൊണ്ട് വരാം അപ്പം അതിൻ്റെ അന്ന് വാറണ്ടി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബില്ല് ബില്ലില്ല നമ്പറ് പറഞ്ഞുതന്നാൽ മതിയോ ആ ഞാനൊന്ന് തപ്പിയിട്ട് പറയാം നിങ്ങൾക്ക് അതൊന്ന് എടുക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ ഫോൺ നമ്പർ എന്തെങ്കിലും തന്ന് കഴിഞ്ഞാൽ ആ ശരി ശരി എന്നാൽ കൊണ്ട് വരാം അപ്പം ഇപ്പോഴത്തെ എഡിഷൻ ഏതൊക്കെയാണ് എന്നെല്ലാം പറയാൻ പറ്റുമോ അപ്പോൾ വാറണ്ടി ഉണ്ടെങ്കിൽ പുതിയതെടുക്കുന്നതായിരിക്കില്ലേ നല്ലത് വാലിഡിറ്റി ഉണ്ടെന്നാണ് എത്രയാ മൂന്ന് വർഷം എന്തോ ഇല്ലേ ആ സർവീസ് ചാർജ് മാത്രം ആണെങ്കിലോ ആ ശരി ശരി ശരി ഓക്കെ ഓക്കെ ആ ശരി ശരി തപ്പി എടുക്കാം ആ ശരി ശരി ഓക്കെ ഓക്കെ ആ ശരി ശരി ഇപ്പോഴത്തെ ഫീച്ചേഴ്സൊക്കെ ആ ശരി ശരി മതി മതി ആ ഡേറ്റ് ഒന്ന് നോക്കട്ടെ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാല് ആ ഞാൻ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ആ ശരി ശരി ശരി ആ ശരി ശരി അത് ശരിയാക്കാനായിട്ട് ഇങ്ങോട്ട് ആളെ വിടാൻ കഴിയുമോ ആ ഓക്കെ ഓക്കെ ആ ശരി ശരി വിളിച്ചിട്ട് വന്നാൽ ഓക്കെ താങ്ക്സ്